പണ്ടത്തെ തലമുറയെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കൃത്യനിഷ്ഠയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും വസ്ത്രധാരണത്തിലാണെങ്കിലും അതേപോലെ നടത്തത്തിലാണെങ്കിൽ പോലും വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു തലമുറയാണ് ഈ പഴയ തലമുറ അവർക്ക് ആഗ്രഹങ്ങളാണെങ്കിലും എല്ലാത്തിനും ഓരോ ലിമിറ്റ്സ് ഉണ്ട് അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊരു ഇതിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് പഴയ തലമുറയെന്ന് പറയണത് അധികം വാശിയൊന്നും ഉണ്ടാവില്ല അവർക്ക് ഇപ്പോൾ എനിക്ക് ലിമിറ്റ്സുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നടക്കുന്ന ഒരു തലമുറയാണ് പഴയ തലമുറയെന്ന് പറയണത് പുതിയ തലമുറയെന്ന് പറയുമ്പോൾ എല്ലാത്തിനും എടുത്ത് ചാട്ടം കൂടുതലാണ് അവർക്ക് ഇന്നതിന് ഇത്ര സമയെന്നുണ്ടാവൂലാ കൃത്യനിഷ്ഠ ഉണ്ടാവില്ല ഇപ്പോൾ ഒമ്പത് മണിക്ക് എണീക്ക ഒമ്പത് മണിക്കായിരിക്കും എണീക്കുക പക്ഷെ പഴയ തലമുറ കറക്റ്റ് എല്ലാവരും നാല് മണിയാവുമ്പോൾ എണീക്കുന്ന ആൾക്കാരായിരുന്നു അതേപോലെ ഇവർ പറയുമ്പോൾ ഒമ്പത് മണിയാകുമ്പോഴാണ് എണിക്കുക ഇപ്പോഴത്തെ പുതിയ തലമുറ അതേപോലെ എല്ലാവർക്കും ഇപ്പം ഈ ചെറിയ കുട്ടികൾക്ക് ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ചോറ് ഇറങ്ങാത്ത ഒരവസ്ഥയാണ് ചോറ് ഉണ്ണുമ്പോൾ മൊബൈൽ ഫോൺ കളിച്ചോണ്ടായിരിക്കും ഇപ്പോൾ പുതിയ തലമുറകളെല്ലാവരും ചോറുണ്ണുക അതേപോലെ ചിരിയും കളിയായിട്ടായിരിക്കും ചോറുണ്ണുക അതേപോലെ നടന്നിട്ടായിരിക്കും ചോറുണ്ണുക സമായില്ലായെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പഴയ തലമുറക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഒരു മിഡിൽ ഇടയിലത്തെ തലമുറയാണ് മിഡിൽ തലമുറയെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിന്റെയും ഇടയിൽ ജനിച്ചൊരു തലമുറ ആയത് കൊണ്ട് തന്നെ എനിക്കൊക്കെ കറക്റ്റായി മനസ്സിലാവും പഴയ തലമുറയിലുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് പുതിയ തലമുറയിലുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് ഇവരൊക്കെ കൊണ്ട് പോവാന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ് രണ്ട് പേര് ഇപ്പോൾ ഇവരിപ്പോൾ പുതിയ തലമുറക്ക് ഇങ്ങനെയായിരിക്കും നടക്കാൻ ഇഷ്ടം വസ്ത്രധാരണം അവരുടേതായ ഫാഷനൊക്കെയാണ് പക്ഷെ പഴയ തലമുറക്ക് അത് ഇഷ്ടമല്ല അപ്പം അവർ പറയും അവർ പറയണതും നമുക്ക് മനസ്സിലാവും ഇവർ പറയണത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ട് പോവാന്നുള്ളത് ഭയങ്കര വീർപ്പ് മുട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് പേരെയും സാറ്റിസ്ഫാക്ഷൻ ആക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പക്ഷേ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് രണ്ട് പേരുടെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ